ഞങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് വേണ്ട വിധത്തിലുള്ള അറിവ് ലഭിക്കാതിരിക്കുന്നതാണ് അപ്പം ഇപ്പം ഒരു അസുഖം നമ്മടെ ഇപ്പം കൊറോണ വന്നു കൊറോണ വന്നതിന് ഇപ്പോൾ ആൾക്കാർക്ക് അതറിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ എന്നുള്ള ആ ഒരു കാര്യമായിരുന്നു പക്ഷേ അതിനപ്പുറം അതില്ലാത്തൊരു വ്യക്തിക്ക് അതില്ലാത്തൊരു കുടുംബത്തിന് അത് അറിവുകൾ ലഭിക്കാത്തത് വളരെ പ്രശ്നം തന്നെ ആയിരുന്നു അവർ ഒന്നും അറിയുന്നില്ല അല്ലെ ങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ എന്ത് അസുഖങ്ങളായിക്കോട്ടെ ഒരു പകർച്ച വ്യാധി പടരുന്ന ഒരു സമയം ആ ഒരു കാലാവസ്ഥ ആയെങ്കിൽ അപ്പം അതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം മുൻ കൂട്ടി നമുക്ക് അസുഖം വരാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ പകർച്ചവ്യാധിയുടെ സമയം എന്നില്ല എന്ത് അസുഖം ആയിക്കോട്ടെ ഇപ്പോൾ ഒരാൾക്ക് ഒരു ശരീരം ഇപ്പം ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അത് എന്താണ് നമുക്ക് എന്താണ് ഒരു പ്രശ്നം നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഭക്ഷണം ഒരു എന്താണ് ആരോഗ്യത്തിന് പ്രശ്നം വരുന്ന രീതിയിലല്ലാതെ നമുക്ക് ആരോഗ്യ പരമായിട്ട് എങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കാം അല്ലെങ്കിൽ എങ്ങനെ ആരോഗ്യം വയ്ക്കാം എന്ന് വച്ചാൽ തടി കുറഞ്ഞ ആൾക്കാർക്കെങ്ങനെ തടി നല്ല രീതിക്ക് ആരോഗ്യത്തോട് കൂടി കൊണ്ട് നടക്കാം അപ്പോൾ ഫുഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അത് ആരോഗ്യപരമായ ഫുഡ് കഴിക്കാനും ആൾക്കാർക്ക് പോഷകം എന്തൊക്കെയാണ് ശരീരത്തിന് വേണ്ടതെന്നറിയാനും ഓരോ അറിവുകളും ഉണ്ടാകണം ഇങ്ങനെയുള്ള എന്താണ് ബോധവൽക്കരണ ക്ലാസ്സുകളും പരിപാടികളുമൊക്കെ നടത്തിയാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്